ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളികളുണ്ടാവും അതുകൊണ്ട്തന്നെ നമ്മൾ ഏതൊരു ഏതൊരു ചെറിയ ഗ്രാമത്തിൽ പോയാലും ഏതൊരു വലിയ സിറ്റിയിൽ പോയാലും അവിടെ ഒരു മലയാളിയുടെ സാ സാമീപ്യം ഉണ്ടാവുന്നതാണ് അതുകൊണ്ടുതന്നെ മലയാളം മലയാളത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു രാജ്യക്കാർക്കും എടുത്ത് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലായിടത്തും മലയാളികൾ ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും മലയാളം എന്ന ഭാഷേനെക്കുറിച്ച് ചെറിയൊരു ജ്ഞാനമെങ്കിലും ഉണ്ടാവും എവിടെ കേരത്തിലാണ് കേരത്തിൽ നിന്ന് പോകുന്ന പല മലയാളികളും പല രാജ്യങ്ങളിൽ പഴ പല തൊഴിലവസരങ്ങൾ തപ്പിപ്പോകുന്നത് കാരണം എല്ലാ രാജ്യങ്ങളിലും എല്ലാ ചെറിയ ഗ്രാമങ്ങൾ തൊട്ട് സിറ്റികൾ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും മലയാളികളുണ്ടാവും അതോണ്ടന്നെ മലയാളം എല്ലാവർക്കും വളരെ ഫെമിലിയറായ ഒരു ഭാഷയായിരിക്കും അവർക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാവർക്കും മലയാളമെന്ന ഭാഷയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാമായിരിക്കും